ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എട്ട് ലക്ഷത്തി എമ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ആറ് ലക്ഷത്തി അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് അഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്താറ്